ചെടികൾ വളർത്താന് ഞാൻ ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമ്മള് വീട്ടില് അതായത് നമ്മൾ വീട്ടിലാണല്ലോ ചെടികൾ ഒക്കെ വളർത്തുന്നത് അപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടേൽ അവിടുത്തെ മണ്ണ് അല്ലാണ്ട് വേറെ മണ്ണ് നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ എന്താ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ചെടികൾ ഒന്നും വളരാത്ത മണ്ണ് ആണെങ്കിൽ നമ്മള് അതായത് അതിനെ ഫലഭൂഷണമായിട്ടുള്ള മണ്ണാക്കി നമ്മൾ നമ്മളായിട്ട് എടുക്കണം അതാണ് മെയിൻ ആയിട്ട് അത് എങ്ങനയാണ് എന്ന് വെച്ചിട്ടുണ്ടേൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെടി നടുവാണെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചകിരി ചോറ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അല്ലാണ്ട് പിന്നെ ചാണക വളം അതൊക്കെ ചെടികൾക്ക് ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ചാരം അതായത് അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം അങ്ങനത്തെ ഒക്കെ ചെടിയിൽ ഇട്ടാൽ നല്ലതാണ് പിന്നെ റോസാ ചെടിയിൽ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടേൽ മുട്ട തോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ടേൽ റോസാ ചെടി നല്ലോണം വളർത്തും വളരും വളരും പിന്നെ മെയിൻ ആയിട്ട് നമ്മള് രാസവളങ്ങൾ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു തരം വളം ഇടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ ഇപ്പോൾ മഴ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെടി നനയ്ക്കില്ല മഴ ഇല്ലാത്ത സമയം ആണെങ്കില് അതായത് വലിയ വെയിൽ ഒന്നും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കും അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ചെടിയൊക്കെ വാടി നിൽകുവാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൂടുമ്പോൾ നനയ്ക്കും